ഹലോ ആ ഫർസ്സാ റെസ്റ്റൊറന്റ് അല്ലേ ആ ഞാനെയ് മാനേജറാണോ സംസാരിക്കുന്നത് അ എനിക്കെ ഇരുപതാം തീയതി മകൻ്റെ പിറന്നാൾ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നൂറ്റമ്പത് ആളുകൾക്കുള്ള ഫുഡ്ഡ് വേണമായിരുന്നു അപ്പം എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്കവിടെ അവൈലബിൾ ഉള്ളത്

അ എനിക്ക് വേണ്ടത് ഒരു നൂറ്റമ്പത് ആളുകൾക്കുള്ള ചിക്കൻ ബിരിയാണി വേണം അ അപ്പം ചിക്കൻ ബിരിയാണി ആകുമ്പം അതിനുള്ളെ സെർവ് ചെയ്യാനുള്ളെ പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ നിങ്ങൾ തരുമോ അവിടുന്ന് കിട്ടുമോ ആ ഹാ അതുപോലെത്തന്നെ അതിൻ്റെ കൂടെ എന്താ ഉണ്ടാവുക ഈ ചള്ളാസ്സ് ചമ്മന്തി അ അതൊക്കെ ഉണ്ടാവുമലോ അല്ലേ അപ്പം ഇരുപതാം തീയതി ഉച്ചക്ക് ഒരു പത്ത് കിലോ ചിക്കൻ ബിരിയാണി വേണം ഓക്കെ അ പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നമുക്കൊരു ബർത്ത്ഡേ കേക്ക് കൂടെ വേണം ഒരു രണ്ട് കിലോ ഉള്ള റെഡ് വെൽവെറ്റ് കേക്ക് മതി അ ഇരുപതാം തീയതി അ ആ ആയിക്കോട്ടെ ഒരു ഉച്ചയാവുമ്പക്ക് ഒരു പന്ത്രണ്ട് മണി ആവുമ്പക്ക് വീട്ടിൽ എത്തിച്ചാൽ മതി എൻ്റെ നമ്പർ ഈ നമ്പർ തന്നെയാണ് ഇതിലൊന്ന് വിളിച്ചാൽ മതി ഞാനത് ഇതാക്കിക്കോളാം കളക്റ്റ് ചെയ്തോളാം